സ്റ്റാമ്പുകളും നാണയങ്ങളും പണ്ട് തൊട്ടേ ചില വ്യക്തികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളായിരുന്നു അവർ സ്റ്റാമ്പ് കളക്ട് യ്യ് പോസ്റ്റ് വഴി വരുന്നുള്ള കളക്റ്റ് ചെയ്ത് ആ സ്റ്റാമ്പ്കൾ ഒരു ആൽബം പോലെയാക്കിയും അതുപോലെത്തന്നെ പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന പത്ത് പൈസ അഞ്ച് പൈസ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസ എന്നീ നാണയങ്ങൾ ഇന്ന് അതില്ലാതിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അതെല്ലാം ശേഖരിച്ച് ഒരു ആൽബം പോലെ ഉണ്ടാക്കിയും ആ ആൽബം അവർ സൂക്ഷിച്ച് വയ്ക്കുകയും അതവരുടെ ജീവിതത്തിനൊരു സന്തോഷവും ഒരു വിനോദം നൽകുകയും ചെയ്യുന്നത് കൊണ്ട് അവരതിനെ സൂക്ഷിച്ച് വെക്കുകയും അത് അതുവഴി വരുംതലമുറയ്ക്ക് അത് കാണിച്ച് കൊടുക്കുകയും ഇന്ന് പോസ്റ്റ് വഴിയുള്ള ലെറ്റർ ഒക്കെ വരുന്ന വരാത്തൊരു കാലഘട്ടമാണ് അപ്പം ഈ ആൽബം ഇതിനായിട്ട് ഉപയോഗിക്കും അവർക്ക് കാണുകയും ചെയ്യും സാധിക്കുകയും ചെയ്യുന്നുണ്ട് അത് എല്ലാവരും കാണിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയും ഒരു ക്ലാസ്